എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ മത്സ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി അയല ചാള കണവ കിളിമീൻ കൂര കരിമീൻ

സ്രാവ് ചെമ്മീൻ അയ്ക്കൂറ നത്തോലി അങ്ങനെയുള്ള അങ്ങനെയുള്ള എല്ലാ ഇതുമാണ് എനിക്കിഷ്ടം അതായത് അങ്ങനത്തെ മീനുകളൊക്കെ എല്ലാ മീനും ഞാൻ കഴിക്കും എനിക്ക് പിന്നെ അതായത് പിന്നെ മെയിനായിട്ട് എനിക്ക് ചെമ്മീൻ ബിരിയാണി ഭയങ്കരിഷ്ടമാണ് ചെമ്മീൻ ബിരിയാണി കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ കണവ ഭയങ്കരിഷ്ടമാണ് കണവ നമ്മൾ അതായത് ചാറൊന്നുമല്ലല്ലോ നമ്മൾ ഫ്രൈ പോലെയല്ലേ വെക്കുക അതു കണവ ഭയങ്കരിഷ്ടമാണ് പിന്നെ മത്തിയൊക്കെ ഭയങ്കരിഷ്ടമാണ് മത്തിയാണ് ഏറ്റവും ടേസ്റ്റുള്ള മീനെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് പിന്നെ പ്രോട്ടീൻ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും നമുക്കത്യാവശ്യം നല്ല ഫുഡ്ഡാണ് മത്തി മത്തി വറുത്ത് ചോറുണ്ണാനും അതായത് അയല മുളകിട്ടത് കഴിക്കാനും ഭയങ്കരിഷ്ടമാണ് കൂടുതലും അയലയും മത്തിയാണ് വീട്ടിൽ മേടിക്കാറ് നത്തിൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കുറേ നേരം നന്നാക്കണം അത്കൊണ്ട് കൂടുതലും അയലയും മത്തിയൊക്കെയാണ് മേടിക്കാറ്